പ്രത്യേക കഴിവുകൾ ഞാൻ എഡിറ്റിംഗ് ചെയ്യുമായിരുന്നു എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഞാൻ പണ്ടുകാലങ്ങളിൽ ക്രീയേറ്റീവ് ആയി ചിന്തിക്കുന്നൊരാളാണോ എന്ന് ചോദിക്കുന്നൊരാളാണ് ഞാൻ പണ്ട് കാലങ്ങളിൽ ഞാൻ വരക്കുമായിരുന്നു നന്നായിട്ടല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ വരക്കുമായിരുന്നു അപ്പം അപ്പം എഡിറ്റിംഗ് ചെറുതായി ചെയ്യുമായിരുന്നു അപ്പോളാണ് ഞാൻ കോളേജിൽ ചേരുന്നത് ഞാൻ പിന്നെ എൻ എസ് എസ്സിൽ ചേരുന്നത് എൻ എസ് എസ്സിൽ മീഡിയ ടീമിൽ എന്നെയും എടുക്ക എടുക്കുക ഉണ്ടായി അതെടുത്തത് ഞാനൊരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടാണ് അപ്പം ഞാൻ പിന്നെ ഉള്ള എല്ലാ പരിപാടികൾക്കും പോസ്റ്റർ ഉണ്ടാക്കുകയും അത് ഞാൻ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്തിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ ക്യാൻവാ ഡിസൈനിങ്ങെന്നൊരു ഇത് അറിയുന്നതും ക്യാൻവയിൽ പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ ഞാൻ തുടങ്ങുകയും ചെയ്യുന്നത് അങ്ങനെ ഓരോ ഓരോ ഇത് കഴിയുന്തോറും ക്യാൻവയിൽ ഞാൻ പോസ്റ്ററുകൾ ഉണ്ടാക്കി ഉണ്ടാക്കി പോസ്റ്ററുകൾ ഉണ്ടാക്കി പുതിയ പുതിയ ഡിസൈനുകൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു ആദ്യമെല്ലാം അതിലുണ്ടായിരുന്ന ടെമ്പ്ലേറ്റ് അതിലിണ്ട അതിലുണ്ടായിരുന്ന പോസ്റ്ററുകളിൽ മാറ്റം വരുത്തി ചെയ്തിരുന്ന ഞാൻ ഇന്ന് ആദ്യം തൊട്ടു തന്നെ പല പലതും ആദ്യം തൊട്ടു തന്നെ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഒന്ന് എഡിറ്റിംഗ് ആണ് അതുപോലെത്തന്നെ ഇന്ന് പോസ്റ്റർ മാത്രമല്ല വീഡിയോ ആയാലും ബ്രോഷേർസ് ആയാലും മറ്റു കാര്യങ്ങളായാലും എല്ലാം ഞാൻ എഡിറ്റ് ചെയ്യുകയും അത് കൊടുക്കു അത് ഞാൻ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അതെൻ്റെ ആദ്യത്തെ ഒരു കഴിവായി ഞാൻ കാണുന്നു പിന്നെ മറ്റൊന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ വായനയുടെ കഴിവാണ് ആദ്യം മലയാളമോ ഇംഗ്ലീഷോ ശരിക്ക് വായിക്കാനറിയാത്ത ഞാൻ വളരെ കഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എനിക്ക് ഞാൻ ആറിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് ബാലരമ കാണിച്ചു തരുന്നത് അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു അന്ന് തൊട്ട് പത്ത് വർഷത്തോളം ഞാൻ ബാലരമയെന്നു പറഞ്ഞ ബുക്ക് വായിക്കുകയും മലയാളം നന്നായി മനസ്സിലാക്കുകയും ചെയ്തു മാത്രമല്ല ഇംഗ്ലീഷ് വായനക്കായി പല ബുക്കുകളും എൻ്റെ അമ്മ എനിക്ക് മേടിച്ചുതന്നു അങ്ങനെ വായനയിലൂടെ ഞാൻ വായനയുടെ ശേഷി വർധിപ്പിച്ചതായി ഞാൻ വിശ്വസിപ്പിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ നന്നായി വായിക്കുമെന്നും ഈ വായന എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടുത്തന്നെ നന്നായി വായിക്കാൻ സാധിക്കുന്നതെൻ്റെ ഒരു കഴിവായി ഞാൻ കണക്കാക്കുന്നു കണക്കാക്കുന്നു മറ്റൊരു കഴിവ് വരക്കാനുള്ള കഴിവാണ് ചെറുപ്പം തൊട്ട് നന്നായി വരയ്ക്കുന്ന ഒരാളല്ല ഞാൻ എന്നാൽ എന്നാലും പറ്റുന്ന രീതിയിൽ വരച്ച് ഇന്നും പണ്ടത്തെ പണ്ട് ഞാൻ വരച്ചതിനേക്കാൾ നന്നായി വരക്കുന്നതായി ഞാൻ വരച്ചതായി വര വരക്കാറുള്ളതായി ഞാൻ കണക്കാക്കുന്നു എന്ന് നന്നായി വരക്കുന്ന ഒരാളായി ഞാൻ എന്നെ അടയാളപ്പെടുത്തുന്നു മാത്രമല്ല അടുത്ത അടുത്തതായി എൻ്റെ ഒരു കഴിവെന്നു പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഓർമ്മ ശക്തിയാണ് ചില പണ്ട് പണ്ട് ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് പലതുമെനിക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ട് പണ്ട് പണ്ട് പഠിച്ച പല നോളജ്സ് നോള അറിവുകളും എനിക്ക് ഇന്നും ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല പല കാരണങ്ങളിൽ പെട്ടതും മനസ്സിലാക്കാൻ സാധിക്കും നന്നായി കം അല്ല കാൽക്കുലേറ്റർസും കമ്പ്യൂട്ടേഴ്സും അങ്ങനെയുള്ള ഇലക്ട്രോണിക്സിൻ്റെ ഇലെക്ട്രോണിക്സ് വസ്തുക്കൾ ഉപയോഗിക്കാനും ഞാൻ നന്നായി പ്രാവീണ്യം നേടിയവനായി ഞാൻ വിശ്വസിക്കുന്നു